ഹലോ സാറേ ഞാൻ കെടങ്ങാ ആലപ്പുഴയിൽനിന്ന് വിളിയ്ക്കുകയാണേ എന്റെ ഒരു ടീ വീ സാധാ ടീ വിയാണ് എനിക്കുള്ളത് അപ്പം അതിനെനിക്ക് എല്ല് ഇ ഡി റ്റീ വി ആക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാനിങ്ങനെ ഓക്സിജന്റെ അതിനകത്ത് കയറി ഞാനിങ്ങനെ നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ പല അമ്പതിന്റേം മുപ്പത്തിരണ്ടിൻറ്റേയൊക്കെ പല സൈസ്സ് ടീ വി കണ്ടു പക്ഷെ അതിനകത്ത് ആ മുപ്പത്തി രണ്ട് ഇഞ്ചിന്റെ ടീ വീനെക്കാട്ടിലും അമ്പത് ഇഞ്ചിന്റെ ടീ വി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതേതൊക്കെ മോഡലാ സാറേ ഉള്ളത് അ അ ഹ ആ ഓക്കെ സാർ എനിക്കാ ടീ വി അതിനൊക്കെ ഇപ്പം പേമെന്റ് ഒക്കെ എത്രയാകും ഒ അ അ ആ ശരി സാറെ അപ്പം ഞങ്ങൾ ഇത് ഓൺലൈൻ പേമെന്റ് ആണോ ചെയ്യേണ്ടത് അതോ എങ്ങനെയാ സാറെ ആ ഓക്കെ ഓക്കെ അപ്പം ഇത് എന്നത്തേക്ക് സാർ എനിക്ക് ഡെലിവറ് ചെയ്യും ഞങ്ങൾക്കവിടെ വന്നെടുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ദൂരമാണ് അപ്പം ഞങ്ങൾക്ക് വന്നെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നിങ്ങൾ കൊണ്ടുതരുമല്ലോ അല്ലേ ഓക്കെ എന്നത്തേയ്ക്കായിരിക്കും സാറെ രണ്ടാഴ്ച പിടിക്കുവോ അ ഹ ഹ അപ്പം ഓൺലൈനിൽ ഞാൻ പേമെന്റ് അടച്ചാൽ മതിയല്ലോ അല്ലേ അപ്പം എന്തെങ്കിലും ഡിസ്ക്കൗണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ അ അ അ ശരി സാറെ ഓക്കെ എന്നാൽ അപ്പം ഞാനെന്റെ ഡീറ്റെയ്ൽസ് എല്ലാം ഇപ്പം തന്നെ ഫോർവേഡ് ചെയ്യാം അപ്പം എനിക്ക് ഞാൻ ഈ ടീ വി മതി അ അതെനിക്കെത്രയും പെട്ടെന്ന് ആ ഡെലിവറ് ചെയ്ത് തരണം അപ്പം എന്തെങ്കിലും ഇൻ കേസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്ലൈസ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽത്തന്നെ കമ്പ്ലൈൻറ്റ് ചെയ്യാമല്ലോ അല്ലേ അതോ സാറിനെ നേരിട്ട് വിളിക്കണോ അ ഓക്കെ സാറെ താങ്ക് യു ഓക്കെ അ